ഞങ്ങളുടെ ഇവിടെ പുല്പറ്റയിൽ കൃഷിക്കായിട്ട് ജലസേചന പദ്ധതിയൊന്നുമില്ല പിന്നെ ആകെ ഉള്ള രണ്ട് ജലസേചന പദ്ധതി എന്ന് പറഞ്ഞാൽ ഒന്ന് ജലനിധിയാണ് പിന്നെ ഒന്ന് ജപ്പാന് കുടിവെള്ള പദ്ധതി വരുന്നുണ്ട് അത് വരുന്നെയുള്ളൂ പൈപ്പൊക്കെ കീറിയിട്ടിട്ടേ ഉള്ളു വെള്ളം ഒന്നും ആര്ക്കും കിട്ടൽ തുടങ്ങിയിട്ടില്ല പിന്നെ പിന്നെ ജലനിധി കൃഷിക്ക് ഒന്നും ആരും അങ്ങനെ ഉപയോഗിച്ചില്ല നമ്മൾ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് മാത്രമേ ജലനിധി ഒക്കെ ഉപയോഗിക്കാറുള്ളു പിന്നെ പൊതുവേ വേനൽ വന്നാൽ ക്ക് എന്താണ് വെള്ളം വളരെ കുറവായിരിക്കും ഞങ്ങൾക്ക് അപ്പം പിന്നെ കൃഷിയൊന്നും ഉണ്ടാക്കാൻ കയ്യൂല അതൊക്കെ വെള്ളം നനച്ച് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതു കൊണ്ട് കൃഷിയൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ ഞങ്ങൾ തന്നെ മറ്റുള്ള വീടുകളില് പോയാണ്ടാണ് കുളിച്ചൊക്കെ വരൽ പിന്നെ പിന്നെ ജലനിധിൻ്റേത് വീട്ടിലത്തെ ആവശ്യങ്ങള്ക്ക് മാത്രമേ ഉപയോഗിക്കാന് പറ്റുള്ളൂ കൃഷിക്കായിട്ടൊന്നും ഉപയോഗിച്ചു കൂട പിന്നെ എല്ലാം എന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് വെള്ളം നല്ല നല്ലോണം നമ്മൾ ഒറ്റ അടിയാവും കിണറിലൊക്കെ ഞങ്ങൾക്ക് പിന്നെ ജലനിധിയൊന്നുമില്ല കിണറ്റിലത്തെ വെള്ളം തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് കുറവ് വന്നാൽ അപ്പുറത്തെ വീട്ടിലേക്ക് ഒക്കെ പോവും